ഒരു ചിത്രം വരയ്ക്കുമ്പോഴ് ആദ്യം നമ്മളെന്തു ചെയ്യുക മനസ്സിലൊരു ഭാവനയിൽ നമ്മളൊരു ചിത്രത്തെ ഫോക്കസ് ചെയ്ത് വയ്ക്കുക അതു കഴിഞ്ഞതിനു ശേഷം എന്തു ചെയ്യുക നമ്മൾ നല്ലൊരു പെൻസിൽ ഇപ്പോൾ ടു ബി പെൻസിൽ അങ്ങനെ പലതരം പെൻസിലുകളുണ്ട് അതിൽ നമ്മൾ ചിത്രം വരയ്ക്കാനെടുക്കുന്ന ആദ്യം ഒരു ഔട്ടർ ലൈൻ വരച്ച് അതിനെ റെഡിയാക്കി എടുക്കണം ആദ്യം അപ്പോൾ നമ്മൾ നല്ല നല്ല കൂർപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ളൊരു പെൻസിലെടുത്ത് ആദ്യം വരയ്ക്കാൻ തുടങ്ങുക വരച്ചു കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യുക മെല്ലെ ഒരു ഔട്ടർ ലൈൻ വരച്ച് അതിനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇപ്പം ഒരു ഇപ്പം ഒരാളുടെ ചിത്രമാണെങ്കിൽ കണ്ണ് മൂക്ക് അങ്ങനെ അങ്ങനെ വരച്ച് വരച്ച് നല്ലൊരു ചിത്രം എത്തിക്കുക നമ്മളെ ഷെയ്ഡ് കൊടുത്ത് നല്ല രീതിയിൽ വരയ്ക്കണം അപ്പോഴാണ് ഒരു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാവുകയുള്ളൂ പിന്നെ വൃത്തിയാണ് മൈനായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളോരോ സാധനം എടുക്കുമ്പോഴും അടുക്കും ചിട്ടയോടൊക്കെ വച്ച് വൃത്തിയോടെ വച്ചു കഴിഞ്ഞാൽ അടിപൊളി ചിത്രങ്ങളൊക്കെയാക്കി വരാം